എൻ്റെ വീട്ടിലെ അടുക്കളയിൽ വ്യത്യസ്ത ഇനം പാത്രങ്ങൾ ഉണ്ട് അവ ഓരോന്നിനും ഓരോ ആവശ്യത്തിന് വേണ്ടി ആയിരിക്കും ഉപയോഗിക്കുന്നത് ചിലത് ഒരേ സമയം രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് എൻ്റെ അടുക്കളയിലുള്ളത് പ്രധാനമായിട്ടും പറയാണെങ്കിൽ ചട്ടി മീൻ ചട്ടി തന്നെ പലവിധത്തിലുണ്ട് ചെറിയ ചട്ടി ഉണ്ട് വലിയ ചട്ടി ഉണ്ട് അടപ്പുള്ള ചട്ടി ഉണ്ട് അപ്പം അത് മീനിൻ്റെ എണ്ണം അനുസരിച്ച് ഇരിക്കും വലി ഒരുപാട് വലിയ മീനുകളൊക്കെ ആണെങ്കിൽ വലിയ ചട്ടിയിലും ചെറുതാണെങ്കിൽ ചെറിയ ചട്ടിയിലും പിന്നെ അടപ്പുള്ള ചട്ടി ഒരുപാടായിട്ട് ഉപയോഗിച്ച് വരുന്നത് അവിയലൊക്കെ അടുപ്പിൽ വയ്ക്കുമ്പോൾ അവിയൽ വയ്ക്കാൻ വേണ്ടി അടപ്പുള്ള അവി ചട്ടി ഉപയോഗിക്കാറുണ്ട് പിന്നെ കുക്കർ വലിയ കുക്കറുമുണ്ട് ചെറിയ കുക്കറുമുണ്ട് അത് അതിൻ്റെ ആളവിന് അനുസരിച്ചായിരിക്കും കുക്കർ വയ്ക്കുന്നത് പിന്നെയാണെങ്കിൽ അപ്പച്ചട്ടിയുണ്ട് അപ്പച്ചട്ടി അങ്ങനെ പൊതുവേ ഉപയോഗിക്കാറില്ല അപ്പം ഉണ്ടാക്കുന്നത് കുറവായതുകൊണ്ട് അപ്പച്ചട്ടി ഒരുപാട് ഉപയോഗിക്കാറില്ല പിന്നെ ദോശക്കല്ലുണ്ട് ദോശക്കല്ലിൽ ഒരേ സമയം ദോശയും ചുടാറുണ്ട് ഓംലെറ്റും ഉണ്ടാക്കാറുണ്ട് മുട്ട പൊരിക്കാറുമുണ്ട് അപ്പം രണ്ട് കാര്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കാറുണ്ട് പിന്നെ മീൻ പൊരിക്കാൻ ചില സമയങ്ങളിൽ അപ്പച്ചട്ടി ഉപയോഗിക്കാറുണ്ട് അതും രണ്ടു കാര്യങ്ങൾക്ക് രണ്ടല്ല ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്പച്ചട്ടി ഉപയോഗിക്കാറുണ്ട് കടുക് വറുക്കാനായാലും ചില ഇപ്പോൾ സാമ്പാറിനൊക്കെ താളിക്കുമെന്ന് പറയില്ലേ അപ്പം അങ്ങനെ കടുക് വറുക്കാൻ വേണ്ടി ആയിട്ടും അത് ഉപയോഗിക്കാറുണ്ട് പിന്നെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് കലങ്ങളാണ് അരി വയ്ക്കാനുള്ള വലിയ കലങ്ങളുണ്ട് ചെറിയ കലങ്ങളുണ്ട് വെള്ളം കുടിക്കുന്ന വെള്ളം തിളപ്പിക്കാനായിട്ടുള്ള കലങ്ങൾ ഉപയോഗിക്കാറുണ്ട് വലിയ കലങ്ങളും ചെറിയ കലങ്ങളും അതും അതിൻ്റെ അളവിനനുസരിച്ച് ആയിരിക്കും ഉപയോഗിക്കുന്നത് പിന്നെ ചെറിയ ഗ്ലാസ്സുകളുണ്ട് ചെറിയ ചെറിയ പാത്രങ്ങളുണ്ട് അച്ചാറിടുന്ന ഭരണികളുണ്ട്